വിദ്യാഭ്യാസത്തെക്കുറിച്ചു പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം കുറച്ചു കുറച്ചു നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും വിദ്യാഭ്യാസത്തിൽ ഈ മറ്റുള്ള അറിവിനോടൊപ്പം തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊണ്ടുവരണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു തൊഴിലധിഷ്ഠത വിദ്യാഭ്യാസം എന്നു പറയുമ്പോൾ സ്കിൽഡ് ലേബീസ് ഒന്നിൽ കൂടുതൽ ജോലികൾ അറിയാവുന്ന നമ്മൾ ഇപ്പോൾ എന്ത് ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിലും എന്ത് ജോലിക്കും ഏ ചെയ്യാം എന്ത് ജോലിക്കും നമുക്ക് ഒരു ജോലി എന്നും പറഞ്ഞു ഓരോരുത്തരെ മാറ്റി നിർത്തേണ്ട ആവശ്യം ഇല്ലാതെ പല പല ജോലികളും അതിൻ്റെ തിയറിയും പ്രാക്ടിക്കലുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടുകയാണെങ്കിൽ അത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ള രാജ്യങ്ങളിലത്തെ സ്ഥിതികൾ ഞങ്ങൾക്ക് അറിയില്ല എങ്കിലും നമ്മുടെ രാജ്യത്ത് പല പല ജോലി സാധ്യതകളുണ്ട് ആ ജോലി സാധ്യതകൾക്ക് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിലും ഒരുപാട് സ്വയം തൊഴിൽ സംരംഭങ്ങളെ അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ തന്നെ കുറച്ചു ഗ്രാമറ് പഠിച്ചത് പഠിക്കുന്നത് പഠിക്കണം അതും പഠിക്കണം അതിനോടൊപ്പം അറിവ് ഉണ്ടാകണം ആ അറിവിൻ്റെ കൂടെ തന്നെ ജീവിതത്തിൻ്റെ ഒരു നിലവാരം ഉണ്ടാകുന്ന ഒരു ഒരു ജോലി ഉണ്ടാകുന്ന ഒരു പരിപാടിയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം സർക്കാര് കൊണ്ടുവരികയാണെങ്കിൽ അത് നല്ലതാണ് ജോലി പഠിക്കുന്നതിനോടൊപ്പം തന്നെ ജോലിയും ചെറിയ ചെറിയ ജോലികൾ സ്കിൽഡ് ആയിട്ടുള്ള ജോലികൾ പ്ലംബിംഗ് ഇലക്ട്രിക്കല് അതുപോലെയുള്ള അഗ്രിക്കൾച്ചറ് മറ്റു അങ്ങനെ ഉള്ള സാധ്യതകളോട് കൂടിയുള്ള വിദ്യാഭ്യാസ രീതികൾ നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസത്തിൽ കൊണ്ട് വരികയാണെങ്കിൽ അത് കുറച്ചും കൂടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവർക്ക് ജോലി ചെയ്തു സമ്പാദിക്കാനുള്ള ഒരു സാധ്യതയും കൂടെ ഉള്ള ഉള്ള ഒരു കാര്യമാണ് നല്ല കാര്യമാണ് അപ്പം ജനങ്ങൾക്ക് കൂടുതൽ ജനങ്ങൾക്ക് കൂടുതൽ അറിവ് ഉണ്ടാവുകയും ചെയ്യും അവർക്ക് സാമ്പത്തിയമായിട്ട് വലിയ പുരോഗതി ഉണ്ടാകാനായിട്ട് സാധിക്കും സ്വന്തം കാലിൽ നിൽക്കാനുള്ള വിദ്യാഭ്യാസം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്വന്തം ജോലി ചെയ്തിട്ട് ആ വരുമാനം കൊണ്ട് പഠിക്കാനായിട്ട് പിന്നെ ഈവനിംഗ് ക്ലാസ്സുകൾ സമയത്തിൻ്റെ ഏ സമയമനുസരിച്ചു ജോലിക്ക് പോയിട്ട് വന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള വിദേശ രാജ്യങ്ങളളിൽ നിന്നൊക്കെ ഉണ്ട് ഏത് സമയത്ത് നമുക്ക് ഇത്ര അവറ് പഠിക്കാനുള്ള അങ്ങനെയുള്ള ഇത് ഇതിപ്പം രാവിലെ ഏഴ് മണിക്ക് അല്ലേ എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങി വൈകിട്ട് നാല് മണിക്ക് തീരുന്ന അതല്ലാതെ സമയം കുറച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള ഒരു ക്രമീകരണം ജോലി ചെയ്യുക അപ്പം അത് അനുസരിച്ചു അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് യാത്ര ചെയ്തു ജോലി പഠിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പം ബോംബേയിലൊക്കെ ആണെങ്കിലും ഈവനിംഗ് ക്ലാസുകളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പം അതുപോലെ ഒരു നല്ല സാധ്യതകൾ കേരളത്തിലും വരികയാണെങ്കിൽ കേരളത്തിലെ ഇനി വരുന്ന തലമുറയ്ക്ക് അത് നല്ലതായിട്ട് തോന്നും കാര്യമെന്ന് പറഞ്ഞാൽ നമ്മള ക്ലാസ് ജോലി ചെയ്തു കഴിഞ്ഞിട്ട് ആ വരുമാനം കൊണ്ട് നമുക്ക് ചിലവും നടക്കും പഠിത്തത്തിനുള്ള ഇതും കിട്ടും വീട്ടുകാരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ പിള്ളേർക്ക് പഠിക്കാൻ അവരുടെ ഒരു ഒരു ഏണിങ്ങ് അവർക്കൊരു വരുമാനം ആ വരുമാനത്തിന് അവർക്കൊരു നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അതുപോലുള്ള വിദ്യാഭ്യാസങ്ങൾ കേരളത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കുമെന്ന് ആണ് എൻ്റെ അഭിപ്രായം ഓക്കെ